കാലത്തിനനുസരിച്ച് ഒരുപാട് എന്താ പറയുക കലാരൂപങ്ങൾ ഇന്ത്യൻ കലാരൂപങ്ങൾ ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കേരളത്തിലെ കലാ കലാരൂപങ്ങളായിക്കോട്ടെ ചവിട്ട് നാടകം ഇപ്പം കൂടിയാട്ടം തെയ്യം അങ്ങനെയുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട് എന്താ പറയുക നമ്മൾ തീർച്ചയായും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയും എന്നള്ള് തീർച്ചയായും സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ചില കലാരൂപങ്ങളാണ് അപ്പം നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള ഗോത്രങ്ങൾക്കിടയിലുള്ള ഒരുപാട് അവർക്ക് അവരുടെ ഇടയിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട് ഇപ്പോഴും നമ്മുടെ പുറം ലോകം അറിയാത്ത ഒരുപാട് കലാരൂപങ്ങളുണ്ട് അപ്പം ഇവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ കലോത്സവങ്ങളിലും മറ്റ് വേദികളിലും മാത്രം കാണപ്പെടുന്ന ചില കലാ രൂപങ്ങളുണ്ട് അങ്ങനെ മാത്രം നമ്മൾ അങ്ങനെ കലോത്സവങ്ങളിൽ മാത്രം പങ്കെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് പക്ഷെ അങ്ങനെ പോരാ നമ്മൾ എല്ലാവർക്കും എല്ലാ കലാരൂപങ്ങളെക്കുറിച്ചും അറിഞ്ഞും അതുപോലെ തന്നെ ആ കലാരൂപങ്ങളെ അല്ലെങ്കിൽ ആ കലകളിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പം അവർക്കൊക്കെ എന്താ പറയുക ജീവിക്കാനുള്ള ഒരവസരമാണ് നിഷേധിക്കപ്പെടുന്നത്